യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പാടെന്ന് പറയുന്നത് ഒന്ന് ടോയ്ലറ്റ് തന്നെയാണ് നമ്മുടെ നമ്മുടെ നാട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ടോയ്ലറ്റുകൾ ആയിരുന്നാലും പിന്നെ ഓ ത് ശുചീ വൃത്തിയെന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു അതായിരിക്കും അതുപോലെ തന്നെയാണ് പെട്രോൾ പമ്പുകൾ ഞങ്ങൾ നമ്മൾ ഫുള്ള് ടാങ്ക് പെട്രോൾ അടിച്ചോണ്ട് പോയില്ലെങ്കിൽ പെട്രോൾ പമ്പുകളിൽ അവർ മിക്കവാറും അ അടച്ചിട്ടിരിക്കുന്ന സമയങ്ങൾ സമയങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അടച്ചിട്ടേക്കും അതുപോലെതന്നെ ആഹാരങ്ങൾ ആയിരുന്നാലും നമ്മൾ നമുക്ക് നമുക്ക് നമുക്ക് കിട്ടുന്നത് പോലെ നമ്മൾ നാടിനെ പോലെ രുചിയുള്ളതും നല്ല ആഹാരവും ആയിരിക്കില്ല വൃത്തിയില്ലാത്തതും ഭയങ്കരമായിട്ടും അത് നമുക്കത് വൃത്തിയില്ലാത്ത ആഹാരങ്ങളും നല്ല ടേസ്റ്റി ഫുഡും ആയിരിക്കില്ല അതുകാരണം ഞ നമുക്ക് അതുമായിട്ട് ഫുഡ് പോയിസനുണ്ടാകനും വെള്ളമായിരുന്നാലും നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ ശുദ്ധി ആയിട്ടുള്ള വെള്ളം ഒന്നും കിട്ടില്ല അങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെ നമ്മൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു